ഹലോ ടാക്സി ഡ്രൈവറല്ലേ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഞാൻ മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് മുണ്ടത്ത് ജുമാമസ്ജിദിന് ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട് ആ റോഡിൽ നിന്ന് നാലാമത്തെ വീട് ഒരു വൈറ്റ് കളർ അടിച്ച ഒരു വീടുണ്ട് എനിക്ക് ഒരു ടൗണിൽ പോവാനായിരുന്നു നിങ്ങൾ എപ്പോഴാണ് വരുക എന്ന് പറയാമോ നിങ്ങൾ ഇവിടെയുണ്ടോ ഇപ്പം എനിക്ക് നാല് പേരും രണ്ടു മക്കളുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആറു പേർക്ക് പോകാനാണുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ ഞങ്ങൾക്കൊരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യേണ്ടിവരും പോയി വരുന്നത് വരെ നിങ്ങളൊന്ന് നിൽക്കേണ്ടി വരും ഓക്കേ ഹലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആക്കി തരേണ്ടി വരും ഓക്കേ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പം അത് കഴിയുന്നത് വരെ നിങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടിവരും എത്രയാണ് ക്യാഷ് ഒക്കെ വരുന്നത് അത് ഒന്ന് പറയാമോ ഞങ്ങൾ എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെയാണ് വിളിക്കാറ് ഞങ്ങൾ ഇവിടെ ടാക്സിക്കാർ തന്നെയാണ് വിളിക്കാറുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ ഓക്കേ അപ്പം ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റുള്ള വഴിയിലാണ് വീട് നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഒന്ന് എൻ്റെ ഫോണിൽ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഒരു ഹോൺ അടിച്ചാലും മതി ഞങ്ങൾ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കേ അപ്പം നിങ്ങൾക്ക് ടൈം വൈകില്ലല്ലോ ഞങ്ങൾ പറഞ്ഞ ടൈമിന് നിങ്ങൾക്ക് എത്താൻ കഴിയുമോ ഒരു രണ്ടു മണി ആകുമ്പോൾ ഓക്കേ രണ്ടു മണിക്ക് ഉള്ളിലായിട്ട് എത്താൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ രണ്ടു മണി കഴിയരുത് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് പെട്ടെന്ന് പോയി വരേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് അപ്പം രണ്ടു മണി ആകുമ്പഴത്തേക്ക് നിങ്ങൾ എത്തണം അത് വേഗം കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഓക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ നോക്കണേ